അവിടെ നിങ്ങളെത്ര പേരാണ് താമസിക്കാൻ വരുന്നത് അപ്പോൾ ഒരെത്ര ദിവസത്തേക്കായിരിക്കും അപ്പം ഒരു ദിവസത്തേയ്ക്ക് ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെയാണ് ഇവിടെ വിലയ്ക്ക് കൊടുക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ നാടൻ ഫുഡുകളാണ് ഏറ്റവും കൂടുതലുള്ളത് അതായത് ഈ മീൻ ഐറ്റംസ് അങ്ങനത്തെ ഐറ്റംസാണ് ഏറ്റവും കൂടലുള്ളത് നിങ്ങളെ ഞങ്ങളുടെ വെറൈറ്റി എന്ന് ഞങ്ങളുടെ വെറൈറ്റി എന്നു പറഞ്ഞത് ഈ വരാൽ ഈ കൊഞ്ച് പ്രോൺസ് അങ്ങനത്തെ ഐറ്റംസാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് പിന്നെ കരിമീൻ ഞണ്ടും കൊടുക്കാറൊക്കെയുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഈ കരിമീൻ പൊള്ളിച്ചതാണ് ഇവിടെ വിറ്റ് പോവുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിയിരുന്നത് ഏതായിരുന്നു പിന്നെ അങ്ങനത്തെ മോഡലാണ് ഞങ്ങളിവിടെ ഏറ്റവും കൂടുതലും വിറ്റ് പോവുന്നത് ആ ഉണ്ട് ഉണ്ട് ഉണ്ട് ആ ഉണ്ട് അതിൻ്റെ റേറ്റെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കരിമീൻ പൊള്ളിച്ചതിനാണെങ്കിൽ എഴുപത് രൂപ അത്രയൊക്കെയാണ് അത്രയൊക്കെ ഉള്ളൂ ആ ഓക്കെ ഓക്കെ അതിവിടെ അവൈലബിൾ ആണ് ആ ഇവിടെ അതെല്ലാം അവൈലബിൾ ആണ്

ഓക്കെ താങ്ക് യു